ഹല്ലോ ആ ഇത് കേരള റസ്റ്റോറന്റിലെ കുക്ക് അല്ലേ ആ ഞാൻ വിളിച്ചത് എനിക്ക് കുറച്ച് പിന്നെ സീ ഫുഡ്സ് കഴിക്കാൻ ഒരാഗ്രഹം അപ്പോൾ അവിടെ അവൈലബിൾ ആയിരിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഇവിടെ ആ ഞാൻ ഇവിടെ ഒരു അഡ്വെർടൈസ്മെന്റ് അഡ്വെർടൈസ്മെന്റ് കണ്ടിട്ട് ഉണ്ടായിരുന്നു ഒരു നോട്ടീസിൽ അപ്പോൾ അത് കണ്ടിട്ട് വിളിച്ചതാണ് ആ എനിക്ക് ഇപ്പോൾ ഒരു ഒരാഴ്ച്ച കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരു ബസ്സ് ആൾക്കാർ ഉണ്ട് അപ്പോൾ പിന്നെ എല്ലാവർക്കുമൊന്ന് കഴിക്കാൻ ഒരാഗ്രഹം അപ്പോൾ എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ് അപ്പോൾ ഒരു അടുത്ത അടുത്ത ഞായറാഴ്ച്ച ആയിട്ടാണ് അപ്പോൾ നമ്മൾ പ്രീബുക്കിങ്ങ് ചെയ്യണം അല്ലെങ്കിൽ അവിടെ വന്നിട്ടുതന്നെ കിട്ടുമോ ആ അത് കുഴപ്പമില്ല ആ ആ പിന്നെ ഇത് കടലിന്റെ സൈഡിലല്ലേ ഇങ്ങനെ ഇവിടെ ഇതിൽ കണ്ടു കടലിന്റെ ഒരു വ്യൂവിലാണ് ആ ആ അപ്പോൾ ഫ്രഷ് ആയിട്ടുതന്നെ കിട്ടും അല്ലേ പിന്നെ ഏതൊക്കെ സീ ഫുഡ്സ് ഉണ്ടാവുക

ആ ആ പിന്നെ ഞണ്ട് ഉണ്ടാകുമോ ആ പിന്നെ കരിമീനോ ആ ആ അവിടെയാണ് ഉളളത് അല്ലേ ആ ആ അപ്പോൾ അവിടെ നിന്ന് കിട്ടില്ല അല്ലേ ആ ആ പിന്നെ അപ്പോൾ ഫ്രഷ് ആയിട്ടു തന്നെ നമ്മുടെ നമ്മൾ തന്നെ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് തന്നിട്ട് നിങ്ങൾ പിന്നെ എന്തെങ്കിലും ഫ്രൈ ചെയ്തു തരുന്നതോ ഇവിടെ നിന്ന് ആ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുമോ നിങ്ങളുടെ അവിടെ നിന്ന് പിന്നെ മീനൊക്കെ വാങ്ങിയിട്ട് ആ ആ കൊണ്ടുവരാൻ പറ്റും അല്ലേ പിന്നെ ഇപ്പോൾ അതിൻറെ കോസ്റ്റോക്കെ എങ്ങനെ വരും ആ ഇപ്പോൾ ഒരു പിന്നെ ഒരു ഒരു ഇതിൽ മാത്രമാണോ അതോ ഫുൾ ഹാഫ് അങ്ങനെ ആണോ തരുന്നത് ആ ആ അപ്പോൾ ഫുള്ളിനാണ് ഫൈവ് ഹൺഡ്രഡ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് ആ ആ ആ ആ ആ പിന്നെ ഇപ്പോൾ ഈ ചെമ്മീൻ ഒക്കെ ആവുമ്പം ഫ്രൈയും പിന്നെ കറിയൊക്കെ അങ്ങനെ ഒക്കെ ഉണ്ടാകുവോ അല്ലെങ്കിൽ ഫ്രൈ മാത്രമാണോ ഉണ്ടാവും ആ നമ്മളെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തു തരും ആ ആ ഇപ്പോൾ വിട്ടീലേക്ക് വേണമെങ്കിൽ പാർസൽ അക്കിയിട്ടും നിങ്ങൾ തരും അല്ലേ ആ ആ അപ്പോൾ പിന്നെ അവിടെ ഡിഷ് അതിൻ്റെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റിയ എന്തൊക്കെയാണ് ഉള്ളത് ആ അപ്പോൾ നമ്മൾ ഒന്നും കരുതേണ്ട അല്ലേ അവിടെ തന്നെ ഉണ്ടാവും എന്ന് എന്നാൽ പിന്നെ ഓക്കേ ഞാൻ അടുത്ത ഞായാറാഴ്ച്ച വരും ആ